ഞങ്ങളുടെ ഗ്രാമീണ സമൂഹത്തിൽ എല്ലാതരം നൃത്തങ്ങളും ജനപ്രിയം ആയിട്ടുള്ളതാണ് നൃത്തങ്ങൾ കണ്ടു ആസ്വദിക്കുന്നതിന് എല്ലാവർക്കും വളരെ താൽപ്പര്യമുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാ മേഖലകളിൽ എന്തൊരു എന്തൊരു പരിപാടി നടന്നാലും നൃത്തം ആ വളരെ വിലപ്പെട്ടതാണ് ഒരു കല്യാണത്തിനാണെങ്കിലും ഒരു മാമോദീസ മധുരം വെപ്പ് എന്ന് വേണ്ട എന്തു പരിപാടി ഒരു കുടുംബത്തിൻ്റെ വക ആയിട്ടോ സമൂഹത്തിൻ്റെ വക ആയിട്ടോ സ്കൂളിൻ്റെ വക ആയിട്ട് ഏത് മേഖലകളിലാണെങ്കിൽ പോലും ഒരു നൃത്തം ഒരു പരിപാടി നടക്കുകയാണങ്കിൽ അവിടെ നൃത്തം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ആ പണ്ടൊക്കെ ഒരു പരിപാടിക്ക് മുമ്പ് ഈശ്വര പ്രാർത്ഥനയാണ് ചൊല്ലിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്ക് പകരം പ്രെയർ ഡാൻസാണ് നടക്കുന്നത് ഇപ്പോൾ അതുപോലും ഒരു നൃത്ത രൂപത്തിലാക്കിയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ നൃത്തം ഇന്നത്തെ സമൂഹത്തിൽ വളരെ വിലപ്പെട്ടതാണ് അതു മാത്രമല്ല ഇപ്പോൾ സ്കൂളുകളിൽ ആണെങ്കിൽ പോലും അവരുടെ കോ കരിക്കുലർ ആക്റ്റിവിറ്റി ആയിട്ട് ഡാൻസെന്ന് പറയുന്നത് ഒരു കോ കരിക്കുലർ ആക്റ്റിവിറ്റി ആണ് അവർക്ക് സ്കൂളുകളിൽ ആണെങ്കിലും ഡാൻസ് മാഷായി ആ അത് അവർ ഡാൻസ് സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുന്നു അതുപോലെ അവർ സ്കൂൾ തല മത്സരങ്ങളിലും ജില്ലാ മത്സരങ്ങൾള് സ്റ്റേറ്റ് മത്സരങ്ങളും എല്ലാം ഈ കുട്ടികൾ പങ്കെടുക്കുന്നു അങ്ങനെ അവർ അവരുടെ ആ സ്കൂളിൽ സ്കൂൾ തലത്തിൽ നിന്ന് സ്കൂൾ തലത്തിൽ നിന്ന് സ്കൂൾ തല സ എന്നല്ല നേഴ്സറി തലത്തിൽ നിന്നു വരെ കുട്ടികൾ അവരുടെ കഴിവുകൾ ളെ കണ്ടെത്തി അതിനെ കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ കുട്ടികൾ ഇപ്പോൾ എല്ലാ കുട്ടികളെ എല്ലാ രീതിയിൽ ക്ലാസിക്കൽ ഡാൻസായാലും നാടോടി നൃത്തമാണെങ്കിലും ഗ്രൂപ്പ് ഡാൻസ് എല്ലാ തരത്തിലും കുട്ടികൾ അവരുടെ കഴിവ് തെളിയിക്കുകയാണ് ഏതൊരു പരിപാടിക്ക് ആണെങ്കിൽ പോലും കുട്ടികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് കുട്ടികൾ അതിൽ വളരെ സംതൃപ്തരുമാണ് കുട്ടികൾ ഇപ്പോൾ ഒരു പരിപാടിക്ക് നമ്മൾ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും അതിന് പുറകോട്ട് മാറി നിൽക്കാറില്ല അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു ജോലി ഏറ്റെടുക്കുന്നത് ഇന്നത്തെ കുട്ടികൾ ആ അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഓരോ കലാരൂപങ്ങൾ ഉണ്ട് ക്രിസ്ത്യൻസിനാണെങ്കിൽ മാർഗംകളി അവരുടെ ഒരു കലാരൂപമാണ് അതുപോലെ തന്നെ മുസ്ലീംസിന് ഒപ്പന അവരുടെ ഒരു കലാരൂപമാണ് അതുപോലെ തന്നെ ഹിന്ദൂസിന് തിരുവാതിര അവരുടെ ഒരു കലാരൂപമാണ് അങ്ങനെ ഓരോ വിഭാഗത്തിൽ പെട്ടവർക്കും അവരുടേതായ കലാരൂപങ്ങൾ ഉണ്ട് ഈ എല്ലാ കലാരൂപങ്ങളും അവരുടേതായ രീതിയിൽ പഠിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് സ്കൂളിൽ തലത്തിൽ തന്നെ അവരെ മുൻപോട്ട് കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ ഈ എല്ലാ നിലകളിലും അവരുടെ കഴിവ് തെളിയിക്കുന്നു ഇപ്പോൾ എവിടെ ഒരു ആളുകൾ കൂടുന്നു അവിടെ എല്ലാം നൃത്തം ചെയ്യുന്ന അവസരങ്ങളാണ് ഉണ്ടായി കൊണ്ടിരിക്കുന്നു ഒരു ഗാനമേള നടക്കുന്ന അവസരത്തിൽ ആണെങ്കിൽ പോലും ആ എല്ലാ എന്തു പരിപാടി നടന്നാലും ആ അവിടെ നൃത്തങ്ങൾ നൃത്തം ചെയ്യുന്ന അവസരങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോഴുള്ള എല്ലാ കല്ല്യാണങ്ങൾക്കും

നൃത്തമില്ലാതെ ഒരു പരിപാടികളും ഇപ്പോൾ നടക്കാറില്ല കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ എല്ലാ കലകളും മുതിർന്നവർക്കും ചെയ്യാവുന്നതാണ് അത് കുട്ടികളെന്ന് മാത്രമല്ല മുതിർന്നവരും ഈ എല്ലാ കലകൾ ആ കൂടുതൽ മികവ് പുലർത്തിക്കൊണ്ട് പുലർത്തുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ നമ്മുടെ കുട്ടികൾ ഈ നമ്മുടെ കുട്ടികൾ എന്നല്ല നമ്മുടെ ആളുകൾ ഈ നിലയിൽ ആ അവരുട കഴിവ് തെളിയിച്ചു അവർ അവരുടെ ജീവിതം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്